അത് വളരെ ഇൻട്രസ്റ്റിങ്ങായിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റു ഭാഷകൾ മലയാള ഭാഷയും എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് ബിസിക്കല ഞാൻ പറയട്ടെ സംസ്കൃതം എന്നുള്ളത് അതുപോലെ ഇംഗ്ലീഷ് എന്നുള്ളത് മലയാള ഭാഷയെ മാത്രമല്ല അത് നിരവധി ഭാഷകളെ മലയാളം ആവട്ടെ തമിഴാവട്ടെ അതുപോലെ ഇനി ഇപ്പോൾ തെലുങ്ക് അങ്ങനെയൊക്കെ ആവട്ടെ അതിലൊക്കെ സംസ്കൃതത്തിൻ്റെ നല്ലൊരു ചായ്വ് കാണണം കാരണം സംസ്കൃതം ബേസിക്കലി ഇന്ത്യൻ ലാംഗ്വേജാണ് അതായത് ഓൾഡ് ഇന്ത്യൻ ലാംഗ്വേജാണ് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഡിറൈവായിട്ട് ഡിറൈവായിട്ടെന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കുറേ കടമൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പം മലയാളം ആയാലും തമിഴായാലുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പം സംസ്കൃതം എന്നു പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഷയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് അങ്ങനെ തന്നെയാണ് ഇന്ന് കാണുന്നു ആ ഭാഷയെ സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളികളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് സംസ്കൃതം ഇവിടെ സ്കൂളിലൊക്കെ സംസ്കൃതം ലാംഗ്വേജായിട്ട് പഠിപ്പിക്കുന്നതു വരെ ഉണ്ട് സംസ്കൃത ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽപ്പോലും സംസ്കൃതത്തെ ബഹുമാനിക്കുകയും ആ ഭാഷയോടുള്ള കടപ്പാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരവധി നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സംസ്കൃതം ഭാഷ എന്നു പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ മലയാള ഭാഷയിൽ വളരെ വലിയ സ്വാധീനമാണ് മലയാള ഭാഷയിൽ കൊണ്ടു വന്നിട്ടുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും കുറേ വാക്കുകളൊക്കെ അതിൽ നിന്ന് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മളെ കുഞ്ചൻ നമ്പ്യർ കുഞ്ചൻ നമ്പ്യാരുടെ പഴയകാല എഴുത്തുകൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എഴുത്തുകൾ അതിലൊക്കെ സംസ്കൃതം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്വാധീനം കാണാൻ പറ്റും അതുപോലെ ഇംഗ്ലീഷെന്ന് പറയുന്ന ഭാഷ ഇംഗ്ലീഷെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജാണ് അപ്പം ഇംഗ്ലീഷ് ഈ പറഞ്ഞതുപോലെ എല്ലാ ഭാഷകളിലും ഇപ്പം നമ്മൾ തന്നെ മലയാളികൾ തന്നെ യൂസ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ രാവിലെ ഏണീറ്റാൽ ബ്രഷെന്ന് പറയും പേസ്റ്റെന്ന് പറയും പിന്നെ അതുപോലെ ഇനി ഇപ്പം എന്ത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ദേർ ഈസ് എൻ ഇംഗ്ലീഷ് വേഡ് അതാണ് ഇംഗ്ലീഷ് നമ്മൾ അത് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് ഇപ്പം മലയാള ഭാഷയെ ഓവർ ത്രോ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇംഗ്ലീഷ് വളർന്നിട്ടുണ്ട് കാരണം എന്ന് മലയാളികളൊക്കെ ഒരു ഫാഷനായിട്ട് കാണുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പ സ്വഭയകായിട്ട് മലയാള ഭാഷയെ അതിൻ്റെ ആ ഒരു ശുദ്ധിയെ അതിൻ്റെ ആ ഒരു അടിസ്ഥാന രൂപത്തെ ബാധിക്കുക എന്നുള്ളതിൽ യാതൊരു ഇത് സംശയമില്ല അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും കാരണം ഇന്ന് മലയാളികൾ കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ് ഇംഗ്ലീഷ് കാഫേ പോലെയുള്ള സ്പീക്ക് ഈസി പോലെയുള്ള അക്കാദമികൾ വരുന്നു അതുവഴു അതുവഴി ഏത് വീട്ടമ്മയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നു അങ്ങനെ മാക്സിമം ഇംഗ്ലീഷ് വേർഡസ് യൂസ് ചെയ്യുന്നു ഇതിലൊക്കെ ഞാൻ ഒരു ആശങ്കയായിട്ട് കാണുന്നത് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ല എഴുത്തുകൾ നല്ല കൃതികൾ നല്ല സ്ഫുടതയുള്ള അടിസ്ഥാന രൂപത്തിലുള്ള മലയാളത്തിൽ എഴുതപ്പെട്ട കുറേ ഗ്രന്ഥങ്ങൾ ഉണ്ട് കുറേ കുറേ പുസ്തകങ്ങൾ ഉണ്ട് ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ള ഒരു മലയാള ഭാഷയിൽ അതിൻ്റെ ആ ഒരു ചാരുതയ ചാരുതയിൽ കാണാൻ പറ്റു എന്നുള്ളത് സംശയകരം തന്നെയാണ് കാരണം അത്തരത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മുടെ സ്വാധീനിച്ചു കൊണ്ടിരിന്നത് മൊത്തത്തിൽ രണ്ട് ഭാഷകളും വളരെ വലിയ സ്വാധീനമാണ് മലയാള ഭാഷയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്